ഹലോ ആ ഞാൻ ഞാൻ ഫുഡ്ഡ് ഓർഡറ് ചെയ്ത് ആയിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു ബിരിയാണി ആ അത് പക്ഷേ എങ്കിൽ ഒട്ടും നല്ലതല്ലായിരുന്നു ഭയങ്കര ഉപ്പ് ഒക്കെ ആയിരുന്നു കൊള്ളത്തില്ലായിരുന്നല്ലോ ആ ഞങ്ങൾ നേരത്തെ കഴിച്ചപ്പോഴൊക്കെ നല്ലത് ആയിരുന്നു അതുകൊണ്ട് ആണ് ഓർഡറ് ചെയ്തത് പക്ഷേ എങ്കിൽ അത് മൊത്തത്തിൽ കൊള്ളത്തില്ല എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര മോശാണ് അതാണ് പിന്നെ വിളിച്ച് പറയാണെന്ന് വച്ചത് ആ ഞങ്ങൾക്ക് ഇപ്പം അവിടെ വന്ന് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്നാൽ ഓർഡറ് ചെയ്യാമെന്ന് വച്ചായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടി ഇരുന്നായിരുന്നു അപ്പോഴാണ് ആ അപ്പം ഞങ്ങൾ അന്ന് നേരത്തെ ഓൾറെഡി കഴിച്ചു ബിരിയാണി അപ്പോൾ അവിടെ നല്ല ഓൾറെഡി അവിടുത്തെ ഫുഡ്ഡ് ഒക്കെ നല്ലത് ആണല്ലോ അപ്പം എന്നാൽ രണ്ട് ഫ്രണ്ട്സ് വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വച്ചു അത് ആയിരുന്നു ഓർഡർ ചെയ്യാമെന്നു വച്ചത് അപ്പം ആ രണ്ട് ആഴ്ച മുമ്പ് ആയിരുന്നു അപ്പം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഒന്ന് പറയാം കാരണം നമ്മൾ സ്ഥിരം വാങ്ങുന്നത് പറയണമല്ലോ അതുകൊണ്ടാണ് ഒന്ന് പറയാമൃന്ന് വച്ചത്

ആ ആ ആ ആ കഴിക്കും കുഴപ്പമില്ല മോശം ഒന്നും വിചാരിക്കല്ല കേട്ടോ കാരണം അത് പറയാമെന്ന് വച്ച് പറഞ്ഞതാണ് കാരണം ഫുഡ്ഡ് ഇനിയും ആരെങ്കിലും വേറെ ആരെങ്കിലും പറയേണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞന്നെ ഉള്ളൂ ഞങ്ങൾ ഇനിയും വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞു